എല്ലാ കാലാവസ്ഥകളിലും നമ്മൾ ചെടി വളർത്തുന്നത് ഒരേ പോലെയല്ല ഓരോ കാലാവസ്ഥക്ക് അനുസരിച്ച് നമ്മൾ ചെടികൾ വളർത്തുന്നത് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ നമ്മള് വേനൽകാലത്ത് എന്ന് പറയുമ്പോൾ എല്ലാ ചെടികൾക്കും അധികം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് സൂര്യപ്രകാശം ഉണ്ട് കൂടുതലും കിട്ടും പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള ജലം അവർക്ക് വേണം അപ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരവും എല്ലാ ചെടികളും നനക്കുകയും എല്ലാം ചെയ്യുന്നു ഈ വേനൽക്കാലത്ത് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ചില ചെടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അധികം വെള്ളം കിട്ടാ കിട്ടാതെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാ വേനൽക്കാലത്ത് എല്ലാ ചെടികൾക്കും കൂടുതൽ ജലം ആവശ്യമുള്ളതാണ് പിന്നെ വേറെ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മള് ഈ തണുപ്പ് കാലങ്ങളില് ചെടികള് ഈ ഇലകളൊക്കെ കൊഴിയുകയും ഒരു കായുകയും ചെയ്യാറുണ്ട് ചില പ്രദേശങ്ങളില് അതിശക്തമായ മഴ മൂലം ചെടികൾ നഷ്ടപ്പെടുകയും മഴയുടെ ഫോഴ്സ് കാരണം അത് ആൾക്കാർക്ക് ചെടികള് വീണു പോകുകയും ഒക്കെ ചിലപ്പോ നമ്മുടെ കാറ്റ് മൂലം ചെടികൾ വീണു പോകുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോ നമ്മൾ കഴിവതും നല്ല സ്ഥലങ്ങളിൽ ചെടികൾ വളർത്തുക പിന്നെ ഈ സ്പ്രിങ്ങ് സീസൺ എന്ന് പറയുമ്പോൾ ഈ ഇലകൾ ഒക്കെ കൊഴിയുന്ന സമയമാണ് ഈ ഇലകൾ കൊഴിയുന്ന സമയത്ത് നമ്മള് പിന്നെ അടുത്ത ഓരോ സീസൺ സമയത്ത് ഓരോ ചെടികളും ചെടികൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ ഭൂചലനം അങ്ങനെയുള്ള സംഭവങ്ങൾ ചെടികൾ എല്ലാം നഷ്ടപ്പെടുകയും ഇപ്പോ അതിശക്തമായ കാറ്റ് വീശുമ്പോഴും നമ്മളെ ഈ ചെടികൾ എല്ലാം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല പിന്നെ ഈ വേനൽക്കാലം മഴക്കാലം മഴക്കാലം വരുമ്പോ എന്താണ് അധികം ജലം എല്ലാം ഇതിനും ലഭിക്കുന്നതായിരിക്കും കൂടുതൽ ചില ചെടികൾക്കും ദോഷകരവുമാണ് പിന്നെ ഈ വേനൽക്കാലങ്ങളിൽ എന്ന് പറയുമ്പോ അധികം ചിലത് ആവശ്യം വരുന്നതുമാണ് അപ്പോ ഓരോ കാലഘട്ടത്തിന് അനുസരിച്ച് നമ്മൾ ചെടികളെ സൂക്ഷിക്കുകയും അതിന് അനുസരിച്ചുള്ള ക്രമയങ്ങൾ നടത്തുകയും ചെയ്യണം

ഒരു എല്ലാ പ്രദേശങ്ങളിലും ഒരേ പോലെയായിരിക്കില്ല ചെടികൾ വളരുന്നത് ചില അതിനുള്ള മണ്ണ് ഓരോ ചെടികൾക്കും പ്രത്യേക മണ്ണുകളിൽ അവര് വസിക്കുകയുള്ളൂ വളരുകയുള്ളൂ അപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ ആയിരിക്കില്ല എല്ലാ ചെടികളും അപ്പോ അതിന് അനുസരിച്ചുള്ള മണ്ണുകൾ നമ്മൾ ശേഖരിച്ച് നമ്മൾ ഇപ്പോ ടെറസ് ഫാമിംഗ് പോലുള്ള സംഭവങ്ങൾ ഏർപ്പെടുത്തുകയും വീട്ടിൽ തന്നെ ചെറിയ ഒരു നല്ല നമ്മള് പറ്റുന്ന സ്ഥലങ്ങളിൽ ചെടി വളർത്തുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്